എനിക്ക് ഈ ഞാൻ ഓഡർ ചെയ്ത പ്രോഡക്റ്റ് അതായത് പോകോ എക്സ് ത്രീയിൽ തോന്നിയ ഒരു പോരായ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്ലോട്ട് വെയർ കണ്ടായിരുന്നു പിന്നേ ചെറിയ രീതിയിൽ ഫോൺ ഹാങ്ങ് ആകുന്നുണ്ടായിരുന്നു ആ ഒരു സിക്സ്റ്റീൻ ജീബി റാമിൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു എന്താ പറയുക ബ്ലോട്ട് വെയേർസുണ്ടായിരുന്നത് വെ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അതെല്ലാം റീമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നേ ഭയങ്കരമായിട്ട് ആഡ് കയറി വരുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ആഡ് വരുന്നുണ്ട് അപ്പം ആഡ് ഒ ഓപ്ഷൻ ഉണ്ട് അതായത് അത് ഓഫ് ചെയ്ത് വെയ്ക്കാൻ ഉള്ള ഓപ്ഷനുണ്ട് എന്നാൽ പോലും ഒരുപാട് ആഡ് വരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ യൂസ് ചെയ്തപ്പോൾ പിന്നേ ബ്ലോട്ട് വെയേർസ് കുറേ ഞാൻ ഡിലിറ്റ് ചെയ്തു കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തന്നേ കുറേ സ്പ് ഭയങ്കരമായിട്ട് ബ്ലോട്ട് വെയേർസ് കുറേ സ്പേസ് ഒക്യൂർ ചെയ്യുന്നുണ്ടായിരുന്നു എന്തിൻ്റെ സ്റ്റോറേജിൻ്റെ സ്പേസ് ഒക്യൂർ ചെയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ടും അപ്പം അത് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തപ്പോൾ ഓക്കേ ആയി പിന്നെ എന്താ പറയുക ചില സമയത്ത് ചെറിയ ചില ഫോട്ടോസ് എടുത്തുകഴിയുമ്പം അതൊരു ബ്ലറി ഫീലിങ്ങ്സ് വരുന്നുണ്ടായിരുന്നു ഫോട്ടോസിനൊക്കെ അപ്പം എനിക്ക് ഒന്ന് ഇനി എൻ്റെ കൈ ഷേക്ക് ആയിട്ടാണോയെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും വേറെ പ്രശ്നങ്ങൾ ഒന്നും തോന്നിയില്ല എന്നാലും അത് ഈ ഒരു മൂന്ന് നാല് പ്രശ്നങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടു ഈ ഫോണിനകത്ത്